എന്നില് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിലൊരുപാട് സ്വാധീനം ചെലുത്തിയ ഒരധ്യാപകനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അധ്യാപകനല്ല അധ്യാപികയാണ്

പോസിറ്റീവായിട്ടുള്ള സ്വാധീനമെന്ന് ഞാനൊരിക്കലും പറയില്ല ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസാണ് ആ ഒരു അധ്യാപകയിൽനിന്നും എനിക്കു നേരിടേണ്ടി വന്നിട്ടുള്ളത് അതായത് വിദ്യാഭ്യാസം എന്നു പറയുന്നത് അവരുടെ സ്വഭാവത്തെ അളക്കാനുള്ള ഒരു വസ്തുതയല്ല എന്ന് എനിക്കു തിരിച്ചറിയാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എൻ്റെ സങ്കല്പത്തിൽ അദ്ധ്യാപകരെന്നു പറയുന്നത് വിദ്യാ സമ്പന്നരാണ് അതുപോലെതന്നെ അവർ മര്യാദ അല്ലങ്കിലവരുടെ അവർ എൻ്റെ ഒരു അനുഭവംവച്ചും എൻ്റെ ഒരു കാഴ്ചപ്പാടും അങ്ങനെയായിരുന്നു അധ്യാപകർ ഒരിക്കലും കള്ളം പറയുന്നവരല്ല അല്ലെങ്കിൽ അധ്യപകർ മാനിപ്പുലേറ്റ്യ്യുന്ന ആൾക്കാരല്ല അങ്ങനെയായിരുന്നു എൻ്റെ വിചാരം അതു മുഴുവനായിട്ടും ആ ഒരു ചിന്തയെ മാറ്റിയെടുത്ത ഒരനുഭവം എനിക്കുണ്ടായി കാരണം ഒരധ്യാപിക വെറും നേരമ്പോക്കോടെ അല്ലെങ്കിലൊരു അവർക്കൊരു തമാശ എന്ന രീതിയിലവര് മാനിപ്പുലേറ്റ്യ്ത ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ വളരെയധികം ഇൻഫ്ലുവൻസ്യ്തൊരു സാഹചര്യമുണ്ടായി വിദ്യാർത്ഥി മറ്റാരുമല്ല ഞാൻ തന്നെയാണ് കാരണം ഒരു അധ്യാപിക വെറും ആ കണ്ണുകൊണ്ടു കണ്ടോ കാണുന്നതുകൊണ്ടോ എന്താണെന്ന് ഇപ്പോഴും എനിക്കു വ്യക്തമല്ല അവര് വളരെ മോശമായിട്ട് ഒരു കൂട്ടുകാരിയുടെ അമ്മയെ വിളിച്ച് കൂട്ടുകെട്ടു ശരിയല്ല അതായത് കൂട്ടുകെട്ടു ശരിയല്ല എന്നതിനെപ്പറ്റി സംസാരിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയില് നെഗറ്റീവ് ഇൻഫ്ലുവൻസ്യ്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് കാരണം അതു പറയേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കാതെ ജീവിതത്തിൽ ഇന്നു വരെ ഒരു രീതിയിലും ആൾക്കാരെക്കൊണ്ടു പറയിപ്പിക്കാതെ അല്ലങ്കിൽ നല്ലതു മാത്രം പറയിപ്പിച്ചു ജീവിച്ച എനിക്ക് മിസ്സിൻ്റെ ഒരു നിമിഷത്തെ ആനന്ദത്തിനുവേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ മൂലം നേരിടേണ്ടിവന്നതു വളരെ വലിയൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസായിരുന്നു കാരണം ആ ഒരു കാരണംകൊണ്ട് ആ കൂട്ടുകാരിയുടെ അമ്മയ്ക്ക് എന്നോടുള്ള കാഴ്ചപ്പാടു മാറി കൂട്ടുകാരി മോശം കൂട്ടുകെട്ടിലാണുള്ളതെന്നുള്ളൊരു കാഴ്ചപ്പാടായി ആ ഒരു അധ്യാപികയുടെ ആ ഒരു നിലവാരമില്ലാത്ത പ്രവൃത്തികൊണ്ട് ഉണ്ടായൊരു കാര്യമാണ് പേഴ്സണലായിട്ടൊരു വൈരാഗ്യമോ വ്യക്തി വൈരാഗ്യമോ ഒന്നുമില്ലാതെ ഇരുന്നിട്ടും ഒരു രീതിയിലും മോശം ഞാൻ കേള്പ്പിച്ചിട്ടില്ല എന്നിട്ടുപോലും വളരെ മോശം രീതിയില് സംസാരിച്ച് ആ കൂട്ടുകാരിയുടെ അമ്മയ്ക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്തു അതു വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസായിട്ടാണ് എനിക്കു ഫീല്യ്യുന്നത് അത് ഒരിക്കലും അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ സാധിക്കുന്നില്ല എല്ലാ ദിവസവും അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നുണ്ട് എൻ്റെ പേരെൻ്റ്സിന് എൻ്റെ നിരപരാധിത്വം അതു മനസ്സിലായി എൻ്റെ കൂട്ടുകാർക്കെൻ്റെ നിരപരാധിത്വം മനസ്സിലായി പക്ഷേ ആ ഒരധ്യാപികയുടെ ഒറ്റ ആഗ്രഹം ഒരു ഒറ്റ നിമിഷത്തെ ആനന്ദത്തിനുവേണ്ടി വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമുണ്ടാക്കിപ്പറഞ്ഞ് ആ നേടിയ എൻ്റെ സമാധാനമാണു നഷ്ടപ്പെടുത്തിക്കളഞ്ഞത് ഒരു ദിവസം പോലും അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കാതെ ഇരിക്കുന്നില്ല ആ അധ്യാപികയോടുള്ള വാശിക്ക് എന്നോണം നല്ലതുപോലെ പഠിച്ച് ആ വിഷയത്തിനു നല്ല മാർക്ക് വാങ്ങണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മോശം അനുഭവം ഉണ്ടായൊരധ്യാപകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ അത് മറക്കാനാവുമെന്ന് എനിക്കു തോന്നുന്നില്ല